ഞാന് ലോണിൻ്റെ കാര്യം അറിയാൻ വേണ്ടി ആണ് വിളിച്ചത് ഒരു ഷോപ് തുടങ്ങാൻ ആയിരുന്നു ഒരു എട്ട് ലക്ഷം രൂപ വേണ്ടി വരും നമുക്ക് സ്ഥലം ഉണ്ട്

അതായത് ബിസിനസ് സംബന്ധമായിട്ട് ലോൺ ആണ് അതായത് ഏതിനാണ് ഇപ്പം ഇന്ററസ്റ്റ് കുറവ് ഇപ്പോൾ സ്വയം തൊഴിൽ എങ്കിൽ സ്വയം തൊഴിലിന് എത്ര രൂപ എത്ര ലക്ഷം രൂപ ലോൺ കിട്ടും അതെ അതെ ഇപ്പോൾ എന്തൊക്കെ പ്രൂഫ് ഒക്കെയാണ് വേണ്ടത്

ഏകദേശം എത്ര മാസം എത്ര മാസം നമുക്ക് ലോണ് പാസ്സ് ആയികിട്ടും

ഇത് എത്ര വർഷത്തേക്ക് ആണ് നമുക്ക് ലോണ് ഉണ്ടായി കിട്ടുക

ആ ശരി എന്നാൽ